ഞാൻ നേരിൽ കാണാനായിട്ട് താൽപ്പര്യപ്പെടുന്നൊരു സിനിമ താരം എന്ന് പറയുന്നത് മലയാള സിനിമാ നടി ഉർവ്വശിയാണ് അത് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പം തൊട്ടേ കണ്ട് വരുന്നൊരു സിനിമാ നടിയാണവര് അപ്പം ഏതൊരു വേഷവും വളരെ അധികം തന്മയത്തത്തോടു കൂടിയിട്ട് ചെയ്യുന്നൊരു അഭിനയ മികവ് എന്നെ അത്ഭുതപ്പെടുത്തീയിട്ടുണ്ട് ഇപ്പം അവരുടെ ഒരു അഭിമുഖം നോക്കുവാണെന്നുണ്ടങ്കിലത് ഒട്ടും താൽപ്പര്യമില്ലാത്തൊരു സിനിമാമേഖലയിലോട്ട് കടന്ന് വന്ന ആളാണവര് അപ്പം അങ്ങനെ ഒട്ടും താൽപ്പര്യമില്ലാതെ വന്നിട്ടും ആ ഒരു കിട്ടുന്നൊരു ഏത് വേഷവും അതിൻറ്റേതായൊരു പരിസമാപ്തിയെലേക്കെത്തിക്കാനായിട്ടവർക്ക് സാധിച്ചിട്ടുണ്ട് കാരണം ഏത് വേഷായിക്കോട്ടെ ഇപ്പം ഒരു ഇമോഷണലായിട്ട് ഉള്ള വൈകാരിക രംഗങ്ങളായിക്കോട്ടെ അല്ലങ്കില് തമാശയായിക്കോട്ടെ അത് അത്രയും ഒട്ടും നമ്മളതിനെ എന്താ പറയുക ബോറടിപ്പിക്കാത്ത താരത്തിലാണവര് നമുക്ക് അയ്യേന്ന് തോന്നിക്കുന്ന തരത്തിലല്ല എന്തും അതിൻറ്റേതായ രസത്തോടു കൂടി ചെയ്യാനുള്ള അവരുടെ കഴിവ് വളരെ അധികം നല്ലൊരു കഴിവ് തന്നെയാണ് അപ്പം എനിക്ക് ചോദിക്കാന് ഉള്ളത് താങ്കള് അവര് ഈ ഒരു പ്രഫഷനിലോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരെങ്ങനെയാണ് അവരുടെ ലൈഫിനെ മുന്നോട്ട് കാണിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ അവർക്ക് എന്തുകൊണ്ടും ദൈവം വിധിച്ചിട്ടുള്ളൊരു കാര്യം ഇത് തന്നെ ആയിരുന്നിരിക്കാം അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ല എന്താ പറയുക കഥാപാത്രങ്ങൾ നൽകിയിട്ടും മലയാളത്തിലുള്ള പലരിനേയും വിസ്മയിപ്പിക്കാനായിട്ട് ആളുകളെ വിസ്മയിപ്പിക്കാനായിട്ടവർക്ക് സാധിച്ചത്